ചെറുപ്പത്തിൽ എന്നു വെച്ചാൽ നമുക്ക് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ഒത്തിരി കളികളൊക്കെ കളിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ ഒരു അഞ്ച് വയസ്സ് ആറ് വയസ്സ് ഏഴ് വയസ്സ് ആ ഒരു നമ്മളുടെയൊരു ചെറു പ്രായമായിരുന്നു അപ്പം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കുട്ടിക ചെറിയ പ്രായത്തിൽ നമ്മളാ രീതിയിലുള്ള കളികളൊക്കെ കളിക്കുമായിരുന്നു ഇപ്പം ഓട്ട മത്സരമൊക്കെ നമ്മൾ കളിക്കും നമ്മുടെ കൂട്ടുകാരെയൊക്കെ നമ്മൾ ഒരു ഒരേ വരിയിൽ നിർത്തിയിട്ട് ഒരു നൂറ് മീറ്റർ അപ്പുറത്തോട്ട് ഓടാനൊക്കെ നമ്മൾ പോം ഫസ്റ്റടിക്കുന്നവർക്ക് എന്തെങ്കിലും ചെറിയൊരു സമ്മാനം അങ്ങനെ രീതിയിലൊക്കെ നമ്മൾ കൊടുത്ത് അവരെ നമ്മളൊത്തിരി നമുക്ക് തമ്മിൽ സന്തോഷമായിരുന്നു നമ്മുടെ ചെറിയ പ്രായത്തിൽ നമുക്കിതൊക്കെ ആയിരുന്നു ഭയങ്കര സന്തോഷം നമ്മുടെ സമയം പോകാനായിട്ട് ഇതൊക്കെ ആയിരുന്നു അന്നീ ഈ കാലഘട്ടത്തിലെ പോലെ ഒത്തിരി ഗെയിമുകളായാലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഫോൺ യൂട്യൂബ് ഇപ്പോൾ പുതിയ രീതിയിലുള്ള ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇതുപോലത്തെ ആപ്ലിക്കേഷൻ ഒന്നും ഇല്ല അന്ന് ഇതു പോലത്തുള്ള കളികളൊക്കെയാണ് നമ്മുടെ കൂടുതലും സമയങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് പിന്നെ നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ ഫുട് ബോൾ കളിക്കുമായിരുന്നു ക്രിക്കറ്റ് കളിക്കുമായിരുന്നു ഇതൊക്കെയാണ് നമ്മളൊരു നമ്മുടെ ഹോബീസെന്നു പറഞ്ഞ ഫുട് ബോൾ കളിക്കാൻ നമ്മളിപ്പം ചെറുപ്രായത്തിൽ നമ്മളിപ്പൊരു അഞ്ചാം ക്ലാസ്സിലായിക്കോട്ടെ നാലായിക്കോട്ടെ ആ സമയത്തൊക്കെ നമ്മൾ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് നമ്മളെല്ലാ ദിവസവും വൈകിയിട്ട് തിരിച്ചു വീട്ടിലെത്തുകയും അതിനു ശേഷം വീട്ടിൽ നിന്നു നമ്മൾ ചെറു രീതിയിലുള്ളൊരു ചായയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉള്ളൊരു ഇതൊക്കെ നമ്മൾ കുടിച്ചിട്ടു നമ്മൾ നേരെ പിന്നെ ഫുട് ബോളും ക്രിക്കറ്റും ഇതുപോലത്തുള്ള കളികൾ നമ്മൾ കളിക്കാൻ പോകുകയും ചെയ്യുകയായിരുന്നു ഇപ്പോൾ അത് ഒരു സ്കൂളിൽ പോയി ഒരു നാല് മണിക്കു ശേഷം സ്കൂളിലൊരു നാലരയൊക്കെ ആകുമ്പം സ്കൂളിൽ നിന്നു വന്നതിനു ശേഷം ഒരു അഞ്ച് മണി ആകുമ്പം നമ്മൾ ഫുട് ബോൾ കളിക്കാൻ പോയിട്ടൊരു ആറ് മണിയൊക്കെ ആകുമ്പം നമ്മൾ ഫുട് ബോൾ കളിച്ചു തിരിച്ചു വരും ആ രീതിയൊക്കെ ആയിരുന്നു നമുക്കുണ്ടായിരുന്നത് ഫുട് ബോൾ ക്രിക്കറ്റ് ഇതൊക്കെ ആയിരുന്നു മെയിനായിട്ട് ചെറു പ്രായത്തിൽ നമ്മൾ കളിച്ചു കൊണ്ടിരുന്ന കളികൾ എല്ലാ ദിവസവും വൈകിയിട്ട് സ്കൂളിൽ പോകുക തിരിച്ച് വൈകിയിട്ട് വീട്ടിൽ വരിക അതിനു ശേഷം ഫുട് ബോൾ ക്രിക്കറ്റ് പിന്നെ വോളീ ബോൾ അതു പോലെയുള്ള കളി പല കളികൾ നമ്മൾ കളിക്കുകയും അതിൽ നിന്നു തന്നെ നമ്മൾ സന്തോഷമൊക്കെ നമ്മൾ നമുക്ക് മനസ്സിനായാലും ആ ഒരു പ്രായത്തിൽ നമുക്കിതൊക്കെ ആയിരുന്നു സന്തോഷം നമുക്ക് സ്കൂളിൽ നിന്നു കിട്ടുന്ന എന്ത് ഒരു സ്കൂളിൽ പല ടീച്ചേഴ്സിൻ്റെയും പല രീതിയിലുള്ള ഒരു ദേഷ്യമായാലും പല നമുക്കൊത്തിരി ടെൻഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് സ്കൂളിൽ നിന്നൊക്കെ കിട്ടുമായിരുന്നു അതൊക്കെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ മാറ്റിക്കൊണ്ട് ഇതു പോലെയുള്ള ഫുട് ബോൾ ക്രിക്കറ്റ് ഇങ്ങനത്തുള്ള കളികളെന്നൊക്കെ ആയിരുന്നു നമ്മൾ കൂടുതലും ടെൻഷൻങ്ങൾ ടെൻഷൻ നമ്മൾ കളഞ്ഞു കൊണ്ടിരുന്നത് അതു കൊണ്ടു തന്നെ ഈ ചെറു പ്രായത്തിൽ നമ്മൾക്ക് ഒത്തിരി ഫുട് ബോൾ പല രീതിയിൽ നമ്മുടെ ശരീരം നല്ല രീതിയിൽ കൊണ്ടു പോകാനും അതു പോലെ തന്നെ നല്ല രീതിയിൽ ശരീരം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ പണ്ടു തൊട്ട് ഇതു പോലെയുള്ള കളികൾ കൊണ്ടു നമ്മൾ നമുക്ക് സാധിച്ചിരുന്നു അത് ഇതു പോലത്തുള്ള കളികൾ കളിച്ചതു കാരണം നമുക്കൊത്തിരി കൂട്ടുകാരെയും കിട്ടി അവ ഒത്തിരി കൂട്ടുകാരെയും ഒക്കെ കിട്ടിയായിരുന്നു ഇപ്പോൾ നമുക്ക് എന്തെങ്കിലൊരു വിഷമോ സങ്കടങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാലവരൊക്കെ തന്നെയാണ് നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അത് അതിനു പ്രധാന കാരണമെന്നു വെച്ചു കഴിഞ്ഞാൽ ഇതു പോലത്തുള്ള ഫുട് ബോൾ ക്രിക്കറ്റ് വോളി ബോൾ തുടങ്ങിയ കളികൾ കളിക്കാൻ പോയതു കൊണ്ടു തന്നെയാണ് അതിൽ നിന്നു കിട്ടിയ പ്രചോദനവും അതിൽ നിന്ന് അതിൽ നിന്നു കിട്ടിയ കൂട്ടുകാരും ഒക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എപ്പോഴും വലിയൊരു സമ്പത്ത് എന്നു തന്നെ പറയുന്നത് പിന്നെ ചെറു പ്രായത്തിലുള്ള കളികളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓട്ട മത്സരം പിന്നെ ഓണത്തിൻ്റെയൊക്കെ സമയത്തായിരുന്നു പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചെറു പ്രായത്തിലത് ഒരു അഞ്ച് വയസ്സ് ആറ് വയസ്സ് അല്ലെങ്കിൽ രണ്ടാം ക്ലാസ്സിലൊക്കെ അതിപ്പോൾ ആയിരുന്നു ഈ ഓണം സമയത്തൊക്കെ നമ്മൾ ഓട്ടമത്സരം പയറ് പയറ് പിടുത്തം ഇതു പോലത്തുള്ള കുറേ കളികളൊക്കെ നമ്മൾ ആ സമയത്തായിരുന്നു നമ്മൾ കളിച്ചു കൊണ്ടിരുന്നത് ഇതൊക്കെ തന്നെ ആയിരുന്നു നമ്മുടെ സന്തോഷം ചെറു പ്രായത്തിൽ നമ്മൾ നമ്മൾ സ്കൂളിലൊക്കെ പോയി കഴിയും നമ്മളെല്ലാ ദിവസ ക്രിക്കറ്റ് ഫുട് ബോൾ പോലെയുള്ള കളികളൊക്കെ കളിക്കാൻ പോകും പക്ഷെ ആ നമ്മളുടെ വീട്ടുകാർ നമ്മളെ നമ്മളെ ശകാരിക്കൊക്കെ ചെയ്യുമായിരുന്നു ഇനി നീ ഈ ഒരു ദിവസം ഫുട് ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകേണ്ടയെന്നൊക്കെ പറയുമായിരുന്നു പക്ഷെ എന്നാൽ നമ്മൾ പോകുമായിരുന്നു ഇതൊക്കെ ആയിരുന്നു നമ്മുടെ പണ്ടത്തെ ഒരു സന്തോഷം എന്നു പറയുന്നത്